ഡാൻസ് ടീച്ചർ അല്ലേ ആ ടീച്ചറേ മരിയേടെ മമ്മിയാ ഇത് ആ കൊച്ചിനെ ഞാനവിടെ ഡാൻസിനൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതെ ആ എങ്ങനെയുണ്ട്

ആ എപ്പോഴും അവൾ വീട്ടിൽ വന്ന് ഡാൻസോട് ഡാൻസ് ഇതേ ഉള്ളൂ അവൾക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എപ്പഴും ഡാൻസാ അവക്ക് ഡാൻസ് ചെറുപ്പം മുതലേ ഡാൻസ് ഡാൻസ് ഡാൻസ് ഇത് തന്നെ അതുകൊണ്ട് അവൾക്ക് അവളെ എന്നാ ഡാൻസ് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഡാൻസ് പഠിപ്പിച്ചേക്കാമെന്ന് കരുതി ആ എന്നാൽ ഇനി അതൊരു ഇതാണല്ലോ നല്ല ഒരു കലയാണല്ലോ എന്ന് കരുതിയാ ആ അപ്പം പിന്നെ ഞാൻ ഇത് പിന്നെ പിന്നെ കൊച്ചിനെ നമുക്ക് ഞങ്ങളുടെ പള്ളിയിൽ പിന്നെ പെരുന്നാളൊക്കെ വരുവാണേ അപ്പോൾ അന്നരത്തേക്ക് കൊച്ചിന് അരങ്ങേറ്റം നടത്താൻ പറ്റുമോ നമുക്ക്

ആ പെരുന്നാള് നമുക്ക് സെപ്റ്റംബറ് സെപ്റ്റംബറൊക്കെ എട്ടായിട്ട് വരും അന്നേരം അന്ന് നമുക്കത് ചെയ്യാൻ പറ്റുമോ അരങ്ങേറ്റം നടത്താൻ പറ്റുമോ അത് പെരുന്നാളിൻ്റെ തലേ ദിവസം പ്രോഗ്രാമുണ്ട് ഞങ്ങളുടെ പള്ളിയുടെ ഒരു വലിയ ഒരു കലാസന്ധ്യയൊക്കെയുണ്ട് അപ്പോൾ അതിൽ കൊച്ചിനെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ

ആ വേഗം നമുക്ക് അന്നേരം ഞാൻ ഡ്രസ്സ് ഒക്കെ തയ്പ്പിക്കേണ്ടേ എന്നാ കളറാ എന്തോ കളറാ മെറൂണോ ആ ആ അപ്പോൾ നമുക്കത് ഡിസൈൻ ചെയ്യാൻ കൊടുക്കേണ്ടേ ആ അതെ മേക്കപ്പ് ഒക്കെ ആരാ മേക്കപ്പ് ഉണ്ടോ മ് ആ എത്ര രൂപയാവും എത്ര രൂപയാവും

മേക്കപ്പ് ചെയ്യുന്നത് ആണുങ്ങളൊന്നും അല്ലല്ലോ അല്ലേ ആ ഡാൻസ് ആ ടീച്ചറിനെ വിശ്വസിച്ച് എല്ലാം ഏർപ്പാട് ചെയ്യാം അപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസത്തേക്ക് നമുക്കത് കൊച്ചിൻ്റെ അരങ്ങേറ്റം നടത്തക്ക രീതിയിൽ റെഡിയാക്കിയേക്കണം കേട്ടോ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ഓക്കെ താങ്ക് യു ടീച്ചർ